അലീന ഞാൻ ജൂലിയാണ് അലീന ഞാൻ വിളിച്ചത് നിന്നോടു ഞാനാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലായിരുന്നോ ഞാനൊരു ജോലിക്കുവേണ്ടി അപേക്ഷിച്ചെന്നു അതിന് എനിക്കു റിപ്ലൈ വന്നിട്ടുണ്ട് ഞാനപ്പം ഗുജറാത്തിലാണ് എനിക്ക് പ്ലെയിസ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എനിക്ക് അവിടെ പോകാൻ വേണ്ടി എൻ്റെ ആധാർ കാർഡ് വേണം ഞാൻ തപ്പിനോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ആധാർ കാർഡ് മിസ്സിങ്ങാണ് എനിക്കപ്പോൾ ആ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗം നീ പറഞ്ഞു തരാമോ നിൻ്റെ ആധാർ കാഡ് നീ അപ്ഡേറ്റ് ചെയ്യാൻവേണ്ടി കഴിഞ്ഞ ദിവസം അക്ഷയയിൽ പോയെന്നു പറഞ്ഞില്ലേ അപ്പം എളുപ്പം തന്നെനിക്കെൻ്റെ ആധാർ ക്കാഡൊന്നു കിട്ടണം കാരണം ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കിത് ഇവർക്കയച്ചു കൊടുക്കണേ അപ്പോൾ എത്രയും വേഗം ഇതു കിട്ടാനുള്ള ഒരു നല്ല മാർഗ്ഗം എന്താണെന്നു നീ എനിക്കൊന്നു പറഞ്ഞു തരുമോ നീ അല്ലെ അക്ഷയയിലുള്ള അവരോടു ചോദിച്ചിട്ടൂ പറഞ്ഞാലും മതി ഓക്കെ വെക്കട്ടെ